എൻ്റെ ചെറുപ്പത്തിലെ ഒരു യാത്ര സ്മരണ പങ്കുവയ്ക്കാനെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചെറുപ്പത്തിൽ ഫാമിലി എല്ലാവരും ഒരുമിച്ച് വയനാടൊന്ന് കാണാൻ പോയിരുന്നു ഞാനും എൻ്റെ മൂന്ന് ഫാമിലിയും ഉണ്ടായിരുന്നു അന്നു പോകുമ്പോൾ ഞങ്ങൾ പോയത് വലിയ ബസ്സിലും ഒരു ജീപ്പിലുമാണ് നമ്മളാദ്യം തന്നെ പോയത് വയനാട് പൂക്കോട് തടാകത്തിലേക്കാണ് അവിടെ തടാകവും പാർക്കും പുഴയും എല്ലാം ഒരുമിച്ച് ഉള്ളൊരു സ്ഥലമാണ് ആ തടാകത്തിൽ ഞങ്ങളാദ്യമായിട്ടാണ് പോകുന്നത് പിന്നെ ആ തടാകത്തെപ്പറ്റി പറയാനാണെങ്കിൽ ആവണമെങ്കിൽ അത് അത്യാവശ്യം വലിയൊരു തടാകമാണ് അവിടെ ബോട്ടിങ്ങ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഞങ്ങൾ ഇവിടെനിന്നൊരു പുലർച്ചെ അഞ്ചു മണിയോടെ തിരിച്ച് അവിടെയൊരു പത്തു മണീൻ്റെ ഉള്ളിൽത്തന്നെ എത്തിയിട്ടുണ്ട് ചുരത്തിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അതെനിക്കിപ്പോഴും മറക്കാൻ പറ്റത്തില്ല അത്യാവശ്യം എൻജോയ് തന്നെ ചെയ്ത് തന്നെ അഞ്ച് പത്തുമണിവരെ അവിടെ എത്തി അവിടെ എത്തി ഞങ്ങൾ പൂക്കോട് ലെയ്ക്കിൽ നിന്നും കളിക്കുകയും ബോട്ടിങ്ങ് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നീടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് രാവിലത്തെ ആ ഭക്ഷണം കഴിച്ചതിനു ശേഷം ഞങ്ങൾ ഇടയ്ക്കൽ ഗുഹ കാണാൻ പോയി ഇടയ്ക്കൽ ഗുഹയുടെ പ്രത്യേകത എന്താണെന്നു വച്ചാൽ അത് മൊത്തമായും പാറകെട്ടുകൾ കൊണ്ടുള്ളതാണ് ആ പാറകെട്ടുകൾക്കിടയിലൂടെ നമ്മൾ സഞ്ചരിച്ച് മുകളിലത്തെ ഒരു ഗുഹയുടെ അകത്തെത്തുന്നതാണ് ആ ഗുഹ പുരാതന കാലം തൊട്ടേ ഉള്ളതാണ് അവിടുത്തെ ലിപികളും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ ഏൻസിസ്റ്റേർസ് എഴുതി വച്ചിട്ടുള്ളതാണ് അങ്ങനെ ഉച്ച ഭക്ഷണം കഴിക്കാറായി ഉച്ച ഭക്ഷണം കഴിച്ചതിനു ശേഷമാണ് ഞങ്ങൾ ബാണാസുര സാഗർ ഡാമിൽ പോയത് ബാണാസുര സാഗർ ഡാം എന്നു പറയുന്നത് വയനാട് ജില്ലയിലെ ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡാം തന്നെയാണ് അവിടെ നമ്മൾ കുറെ ഊഞ്ഞാലുകളും കാര്യങ്ങളും പാർക്കുകളും എല്ലാം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് അത് ഏറ്റവും നല്ല ഒരു അനുഭവം ആയിരുന്നു പിന്നീടുള്ളത് ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് ചോദിച്ചാൽ ഇവിടെനിന്ന് തൊട്ടടുത്തുള്ള ടൗൺ സ്റ്റേഷനായ നരിക്കുനി പിന്നെ കൊടുവള്ളി വട്ടോളി എന്ന സ്ഥലങ്ങളാണ് അവിടേയ്ക്കെല്ലാം പ്രധാനമായും ബസ്സുകളിലാണ് യാത്ര ചെയ്യാറുള്ളത് ഇപ്പോൾ ഞാൻ ശേഷം മാത്രമാണ് ബൈക്കുകളിലും കാറുകളിലും ഒക്കെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് പൊതുവേ ഞങ്ങളെല്ലാവരും തന്നെ ബസ്സുകളിലാണ് യാത്ര ചെയ്യാറുള്ളത് ബസ്സുകൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വച്ചാൽ ഞങ്ങൾക്ക് സ്ഥിരമായി സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് മാത്രമായിരുന്നു സ്കൂളിൽ പോകുന്നത് ഞങ്ങൾ സ്കൂൾ ബസ്സിലല്ല ലൈൻ ബസ്സിൽ തന്നെ ആയിരുന്നു